സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇവിടുത്തെ നമ്മുടെ ടൂറിസ്റ്റിൻ്റെ നല്ല സമയം ഈ പ്രദേശത്ത് കൂടുതലായിട്ട് പിന്നെ മലകളും അതുപോലെ നദികളൊക്കെ ഉണ്ട് പ്രത്യേകമായിട്ട് പിന്നെ കൊല്ലം ബീച്ച് കൊല്ലം ബീച്ച് ഉണ്ട് അതുപോലെ എന്ത് മൺറോ തുരുത്ത് അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട് കാണാൻ എല്ലാവർക്കും നല്ലതാണ് അതുപോലെ തെന്മലയുണ്ട് തെന്മലയിൽ തെന്മലയിൽ ഡാം ഉണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതിന് നമുക്ക് സാധിക്കും കൂടുതലും മലകളും നിരകളുമാണ് എല്ലാവർക്കും പിന്നെ ഒത്തിരി ആകർഷ ആകർഷണം ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എല്ലാ അതിൻ്റെ തക്ക സമയത്ത് എല്ലാ കാര്യങ്ങൾ പിന്നെ അത് ടൂറിസ്റ്റ് നടത്തുന്ന ആൾക്കാരും എല്ലാവരും കൂടെ സഹകരിക്കുന്നവരാണ് അതിൻറെ വേണ്ടുന്ന ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാവരും നല്ല രീതിയിലാണ് ടൂറിസ്റ്റുകാരെ അവർ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കുന്നു ഒരു പ്രത്യേക വലിയ വലിയ പൈസ ഒന്നുമില്ലാതെ തന്നെ അവിടെ നല്ല രീതി നടത്തുന്നുണ്ട് കൂടെ കുട്ടികളെയും ആകർഷിക്കുന്നുണ്ട് പിന്നെ കുട്ടികളെ ഒക്കെ സ്കൂളിൽ നിന്ന് വെക്കേഷൻ സമയത്തും അതുപോലെ ടൂറിസ്റ്റ് ആയിട്ടും ഒക്കെ പിള്ളേരെ കൊണ്ട് പോകുന്നതിന് അധ്യാപി അധ്യാപകരും അധ്യാപകർ എല്ലാം സഹകരിക്കുന്നുണ്ട് കൊല്ലത്തേക്ക് കൊല്ലത്തിലേക്ക് ആകുമ്പം അതുപോലെ അടുത്ത് പുനലൂർ ഉണ്ട് പുനലൂർ തൂക്കുപാലം ഉണ്ട് അനേകം കടകളുണ്ട് അങ്ങനെ അങ്ങോട്ട് വലിച്ചെന്നാൽ പിന്നെ തെന്മല തെന്മല പിന്നെ അത് ഡാർ ഡാറുണ്ട് ഏത് സമയത്തും വെള്ളം ഒഴുകുന്നുണ്ട് അപ്പം വന്ന് പാല് പാലരുവി ഉണ്ട് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ കൊല്ലത്തോട്ട് പോയാൽ തന്നെയും വേഗം പിന്നെ ബി കാര്യങ്ങൾ സാധിക്കും സാധിച്ചെടുക്കുന്നുണ്ട് പിന്നെ പള്ളിയിൽ പോ പള്ളി ഉണ്ട് സ്കൂളുകൾ ഉണ്ട് ഏത് ആകർഷണീയമായിട്ട് എന്തോ വേണമെങ്കിലും ഇവിടെ നമ്മുടെ കൊല്ലത്ത് എല്ലാവർക്കും ആകർഷിക്ക തക്ക വണ്ണമുള്ള കാര്യങ്ങളാണ് ഉള്ളത് എല്ലാം എത്ര മനോഹരമായിട്ട് തന്നെയാണ് കൊല്ലത്ത് നമ്മുടെ ഗവണ്മെൻറ് തന്നെ പിന്നെ മുനിസിപ്പാലിറ്റി അവരെല്ലാം തന്നെ അത് പാകപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരെയും ആകർഷിക്കുന്നു അതുപോലെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വിദേശീയർ പോലും കൊല്ലം ജില്ലയെ അവർക്ക് പേര് കേട്ടതാണ് അവരെ ആകർഷിച്ച് പിന്നെ ഇപ്പം പ്രത്യേകമായിട്ടും മൺറോ തുരുത്ത് മൺറോ തുരുത്തുണ്ട് സാമ്പ്രാണിക്കുടി ജടായുപ്പാറ ജടായുപ്പാറയിലെ ആ സൈക്ലിങ്ങ് ഒക്കെ പിന്നെ എല്ലാവരെയും ആകർഷിക്കുന്നതാണ് അധികം പിന്നെ പൈസ ഇവിടെ പേ അതിൻറെ വില കൊടുക്കാതെ തന്നെ പിന്നെ ആളുകൾക്ക് താഴെ നിന്ന് മോളിൽ വരെയും അത് കാണാൻ സാധിക്കും ഒരു പുണ്യ സങ്കേതം തന്നെയാണ് അതേപോലെ പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ എൺപത്തി ഏഴിൽ നടത്തിയിരുന്ന തൂക്കുപാലം ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പാലം ആദ്യത്തെ പാലമാണ് എപ്പോഴും അതിനെ മെയിൻറനൻസ് ചെയ്ത് സ്വീകരിക്കുന്നുണ്ട് കൂടുതലാളുകളെയും ആകർഷിക്കുന്നുണ്ട് അത് പിന്നെ നഷ്ടപെടുത്തി നഷ്ടപ്പെട്ട് പോകാൻ ഒരിക്കലും നമ്മുടെ ഗവൺമെൻറോ നമ്മുടെ എന്താണ് പറയുക പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും അതിനെ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ മെയിൻറനൻസ് ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ ജില്ലക്കാർ ഇവിടെ ആകർഷ ഞങ്ങളുടെ അഭിപ്രായം എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രത്യേകമായിട്ടുള്ള ഒരു നല്ല ജില്ല തന്നെയാണ് അതുപോലെ അതിൻറെ സംവിധായകരും എല്ലാവരും